ഞാൻ റൂം നമ്പറ് ഇരുന്നൂറ്റൊന്നിൽ നിന്നാണേ വിളിക്കുന്നതേ എനിക്ക് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് സൗത്ത് ഇന്ത്യൻ മതി

ഫ്രെഷ് ഫ്രൂഡ്സ് വേണം മ്മ് ചായ ഉണ്ടോ ഷുഗർ ഉള്ളത് മതി ചൈനീസ് ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളത് മാം എനിക്ക് ഇപ്പോൾ രാവിലത്തേക്ക് അപ്പവും മുട്ടക്കറിയും വേണം പിന്നെ ഒരു പതിനൊന്ന് മണി ആവുമ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് വേണം ബൊഫേ ഉണ്ടോ മാം ആ ആ ഓക്കെ അപ്പോൾ ഊണുണ്ടോ ഊണുണ്ടോ മാം ഊണുണ്ടോ നമ്മുടെ സാധാരണ ലഞ്ച് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഡിഷ്കൾ പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങൾക്ക് രാവിലത്തേക്ക് അപ്പവും മുട്ടക്കറിയും അഞ്ച് അഞ്ച് പേർക്ക് അഞ്ച് പേരുണ്ട് ഞങ്ങൾ ആ ഒരു ഇരുപതെണ്ണം അഞ്ച് അഞ്ച് പ്ലെയ്റ്റ് അഞ്ച് പ്ലെയ്റ്റ് മുട്ടക്കറിയും വേണം ഉം പിന്നെ അഞ്ച് അഞ്ച് അഞ്ച് അഞ്ച് കോഫിയും വേണം ആ ആ ഷുഗർ വിത്ത് ഷുഗർ ആ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അഞ്ച് ഗ്ലാസ്സ് പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസ് ആ ഐസും ഷുഗറും കുറച്ചിട്ട് മതി ഐസും ഷുഗറും കുറച്ചിട്ട് മതി ജ്യൂസ് വേറെ ഉച്ചയ്ക്ക് അഞ്ച് ഊണ് വിത്ത് ആ ബീഫ് കറി വേണം ബീഫ് കറി

ആ ഇവനിങ്ങിൽ കോഫിയും

പഴംപൊരിയും പഴംപൊരി പഴംപൊരിം ആ ഉം ആ വൈകീട്ടത്തേക്ക് പിന്നെ വിളിക്കാം പിന്നെ ബുക്ക് ചെയ്യാം വിളിക്കാം ഓക്കെ ഓക്കെ